അതേലോ അതെ ക്ലാരമ്മടെ ഏട്ട അതിരമ്പുഴയിലുള്ള വണ്ടി ഇടാനും സൗകര്യം ഉണ്ടല്ലോ ഇപ്പം ഇപ്പം വരുവാണെങ്കിൽ പൊറോട്ടേം ബീഫുമുണ്ട് പിന്നെ പരിപ്പുവട ഉഴുന്നുവട ചെറുകടി എല്ലാ ഐറ്റംസുമുണ്ട് പിന്നെ ചായ കാപ്പി അങ്ങനെ എല്ലാ ഐറ്റംസുമുണ്ട് ആ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ വരൂ അതിനുള്ള റൂമൊക്കെ ഉണ്ടേ ഏ സി റൂമൊക്കെയാണ് ആ ബിരിയാണിയുണ്ട് മസ ആ ഉണ്ട് ഉണ്ട് ബിരിയാണി ബിരിയാണിയുണ്ട് മസാല ദോശയുണ്ട് നെയ്റോസ്റ്റുണ്ട് എല്ലാ ഐറ്റംസുമുണ്ട് കേട്ടോ ചിക്ക ബി ചിക്കബിരിയാണിയുണ്ട് ബീഫുണ്ട് മട്ടൻ ബിരിയാണിയുണ്ട് എല്ലാമുണ്ട് ഓക്കേ ഓക്കേ ഓക്കേ ആ പാഴ്സലുണ്ട് ഉഴുന്നുവട ഓക്കെ ഓക്കെ എല്ലാമുണ്ട് ആ എല്ലാ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം വന്നുകഴിഞ്ഞിട്ട് പാക്ക് ചെയ്താൽ മതിയല്ലോ അല്ലേ ആ ഓ ആ ചൂടോടെ ചൂടോടെ ഉണ്ടാക്കുന്നത് ശരിയെന്നാൽ സ്പെഷ്യലായിട്ടില്ല ഇപ്പം ചെറുകടികൾ ഇതൊക്കെ ഉള്ളൂ പിന്നെ ഏത്തക്കാപ്പം അങ്ങനത്തെയുള്ളൂ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇത്ര ഐറ്റംസൊക്കെ ആ മീൻവറുത്തതുണ്ട് ചോറും മീൻ വറുത്തതും അങ്ങനെ അതുണ്ട് ഐറ്റംസുണ്ട് അങ്ങനത്തെ എല്ലാമുണ്ട് ബീഫ് ഒലത്തിയത് എല്ലാമുണ്ട് ആ ശരി ബാത് റൂമ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഒരു മാതിരി വലിയ ആ ആ എല്ലാ സൗകര്യവുമുണ്ട് ഒരു കുഴപ്പവുമില്ല എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഉണ്ട് ഉണ്ട് നല്ല നല്ല വൃത്തിയുള്ളതാണ് ക്ലീനിങ്ങിനൊക്കെ ആളിനെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ബാത് റൂമൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ബിരിയാണി മുന്നൂറ്റി മുപ്പത് രൂപ ആ അത് ഊണിനാണേലും നൂറ്റി ഇരുപത് പല വിലെടേൻറ്റെം ഉണ്ട് പിന്നെ പിന്നെ ഇത് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അതിന്റെ റേറ്റ് കൂടുതലാണ് ആ ആ എൻ്റെ ആ എൻ്റെ മോൻ ജെനുവരിയിൽ വരുമെന്ന് പറയുന്നു അറിയത്തില്ലല്ലോ വരുമെന്നാണ് തോന്നുന്നത് അവധി കിട്ടിയിട്ടില്ല അവധി കിട്ടികഴിഞ്ഞാലേ വരത്തുള്ളൂ ഓക്കെ ഓക്കെ ശരി

ഇല്ലയില്ല നമുക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ആ നല്ല കുഴപ്പമില്ല നല്ല കച്ചോടമുണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റിയതൊക്കെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ആ ആ ജോയിയുണ്ട് ബെന്നിച്ചനുണ്ട് ബെന്നിച്ചനുണ്ട് ആ ബെന്നിച്ചൻ ഇല്ല ഇല്ല മോളെ കെട്ടിചേര കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് ആ പോയില്ല അതിൻ്റെ ഒന്നും ശരിയായിട്ടില്ലേ ഇനി ഇൻറ്റർവ്യൂ ഒന്നും വരുന്നില്ല അതോണ്ട് ശരിയായിട്ടില്ല ആ ആ ശരി ചില ആ ആ ജോയി തന്നെയല്ല എൻ്റെ കൂട്ടത്തിൽ ബെന്നിച്ചനുമുണ്ട് ബെന്നിച്ചിനെ അറിയാവോ ആ കോടത്ത് ആ സാരമില്ല ബെന്നി ഓ കുഴപ്പമില്ല ബെന്നിച്ചന് ഇതാണ് സുഖം ആണോ ആ എന്നാൽ ശരി ശരി ആ എന്നാൽ പോട്ടെ നമുക്ക് കല്യാണം ഒക്കെ കൂടാട്ടോ ആ ശരി ശരി ശരി